ആ ഹലോ പറഞ്ഞോളൂ ആ അതെ അതെ

ആ അതെ അതെ അതെ അണല്ലോ അവിടുന്നാണോ വിളിക്കുന്നത് പന്നിയൂരിൽ നിന്നാണോ വിളിക്കുന്നത് ആ എന്താണ് എന്താണ് ഒന്ന് പറഞ്ഞോളൂ ആ നിങ്ങളിവിടെ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടാരുന്നു അല്ലെ ആ പറഞ്ഞോളൂ ആ നിങ്ങളുടെയാണോ ഒരു പന്നിയൂർ ഫീല്ഡിലെ പുതിയതായിട്ട് ഇപ്പോൾ ഒരു കണക്ഷൻ കൊടുക്കുന്ന ഒരു അപ്ലിക്കേഷൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അത് നിങ്ങളെ ഞാൻ പല തവണ വിളിച്ചിട്ടുണ്ടാരുന്നല്ലോ കോള് കിട്ടുന്നില്ലാരുന്നു അത് നിങ്ങൾ എടുത്തിട്ടില്ല അതായത് ഈ ഓഫീസിലേക്ക് വരാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചിരുന്നത് നിങ്ങൾ അപ്ലിക്കേഷൻ വച്ചതിനു ശേഷം ഇങ്ങോട്ടു വന്നതേയില്ല അതിൻ്റെ ഫീസ്സടച്ചോ ഇല്ലയോ ഓഹ് ശരി ഇവിടെ നിന്ന് ഓഫീസിൽ നിന്നു വിളിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിരുന്നത് അതായത് നിങ്ങൾ ഫീസടച്ചിട്ടുണ്ടായിരുന്നോ ഇല്ല അല്ലേ നമ്മൾ ഒരു അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതായത് പുതിയതായിട്ട് ഒരു കണക്ഷൻ എടുക്കണമെങ്കിൽ നമ്മളൊരു അപ്ലിക്കേഷൻ കൊടുക്കണം അപ്ലിക്കേഷൻ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ ഫീസടയ്ക്കണം ഫീസടയ്ക്കുന്നത് നമ്മുടെ പിന്നെ പുതിയ പോസ്റ്റ് അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടും ഫീസടയ്ക്കണം ഫീസടച്ചയിനു ശേഷം നമ്മുടെ ഈ ഓഫീസിൽ നിന്ന് നമ്മളോട് പറയും നിങ്ങളുടെ അപ്ലിക്കേഷൻ കറക്റ്റായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ നിന്ന് വന്നിട്ട് നിങ്ങക്കത് കണക്ഷൻ ചെയ്തുതരും അപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്ത്വക്കുറവാണ് നിങ്ങൾ പിന്നീട് ഇങ്ങോട്ട് വന്നു തിരക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഓഫീസുമായിട്ട് ബന്ധപ്പെ ടാതിരുന്നത് കാരണമാണ് ഈ ഫീസടയ്ക്കുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റാതെ ഇരുന്നത് അത് ഓഫീസിൽ നിന്ന് വിളിക്കുന്നുണ്ടാവാം ഏഹ് നിങ്ങളുടെ അത് ഏത് ഏരിയ ആണ് പന്നിയൂര് ഏത് ഏരിയാണ് നമ്മുടെ ആ സ്കൂളിന് അടുത്തായിട്ടാണോ ആ കുറ്റിപ്പുറം അല്ലേ കുറ്റിപ്പുറത്തു നിന്ന് ആ ആ രാഖവൻ ചേട്ടൻ്റെ ആ കടയുടെ അതുവഴി കിടക്കുന്ന ആ വഴി ആണോ ആ സ്കൂളിന് അടുത്തായിട്ട് വരണം അല്ലേ ആ സ്കൂളിനടുത്ത് മൂന്ന് മൂന്നു വീടുകൾ ഉണ്ടല്ലോ ആദ്യത്തെ വീടാണോ അതോ രണ്ടാമത്തെ വീടോ രണ്ടാമത്തെ വീടല്ലേ ഓഹ് ഓഹ് ഓഹ് ആ ആ ഭാഗത്ത് അതെ പറഞ്ഞില്ലായിരുന്നോ നിങ്ങൾ ആ കൗണ്ടറിൽ തിരക്കിയില്ലായിരുന്നോ ഓഫീസിൽ കൗണ്ടറിൽ തിരക്കിയില്ലായിരുന്നോ ആ നിങ്ങളുടെ കയ്യിൽ ആ ഫയല് തന്നു വിട്ടില്ലായിരുന്നോ ഒരു ഫയലുണ്ടായിരുന്നല്ലോ ആ ആ ആ ആ ഫയല് നമ്മൾ അത് ആ കൗണ്ടറിൽ കൊടുക്കണമായിരുന്നു കേട്ടോ ആ കൗണ്ടറിൽ കൊടുത്തു കഴിയുമ്പം അവർ അവിടെ നിന്നൊരു റെസിപ്റ്റ് തരും അതു നമ്മൾ ഓഫീസിൽ കൊണ്ടുവന്നു സീല് വച്ചിട്ടാണ് നമ്മൾ ആ കൗണ്ടറിൽ കൊണ്ടുവന്ന് ഫീസടയ്ക്കേണ്ടത് അപ്പോൾ അവിടെ ഓഫീസിൽ നിന്നു പറയും എത്ര രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ട ഫീസെന്ന് പറയും അപ്പോൾ അവിടെ കൊണ്ടുവന്ന് ഫീസ് അടയ്ക്കേണ്ട അടയ്ക്കണം കൗണ്ടറിൽ കൊണ്ടുവന്ന് എങ്കിൽമാത്രമേ ആ നാളെ നാളെ വന്നോളൂ നാളെ വന്നോളൂ ഫീസടച്ചിട്ട് ഫീസടച്ചിട്ട് നിങ്ങളെ ഇവിടെനിന്ന് ഓഫീസിൽ നിന്ന് വിളിച്ചറിയിക്കും ഓക്കെ ശരി ഓക്കെ ഓക്കെ